ടി വിയിലെ വാർത്ത ചർച്ചകൾ ഞാൻ കാണാറുണ്ട് അവയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവയുടെ മലയാളമനോരമ ചാനലിലെ ഷാനി പ്രഭാകർ എനിക്ക് ഇഷ്ടമുള്ളൊരു വാർത്ത അവതാരികയാണ് നല്ലൊരു വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഷാനി അത് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഓരോ ഓരോ വിഷയത്തിലും ഷാനി നല്ല രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഓരോരുത്തരുടെ ഉത്തരങ്ങൾ കേൾക്കുന്നതും അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അപ്പം നമുക്ക് അത് കാണുമ്പോൾ കൗണ്ടർ പോയിൻ്റ് എന്ന് ഉള്ള ആ ഒരു പരിപാടി ഞാൻ മിക്കവാറും കാണാറുണ്ട് അതിൽ തന്നെ നമുക്ക് അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളും നല്ല നല്ല സംസാരങ്ങളൊക്കെ നമുക്ക് കണ്ട് പഠിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് നല്ല നല്ല കാര്യങ്ങളും അവയെക്കുറിച്ചുള്ള ചർച്ചകളും ചർച്ചകളും ഒക്കെ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അതിനകത്തുള്ളത് വളരെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളതും ഷാനിയുടെ ഒരു രീതികൾ അതുപോലെ ആ അത് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതികളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓരോരുത്തർക്കും ഇപ്പം ചർച്ചയിലാരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരോട് വ്യക്തമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അവരോട് പറയുന്ന ഉത്തരങ്ങൾ നല്ല രീതിയിൽ തന്നെ കേൾക്കാനും അതിനെ തീർച്ചയായും എന്തെങ്കിലും മറുപടി പറയണം എന്നുണ്ടങ്കിൽ ആ അതും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി പറയുന്നതും അതിനുള്ള പ്രതിവിധികളും പറഞ്ഞ് കൊടുക്കുന്നതും നല്ല രീതിയിൽ തന്നെയാണ് നല്ല കണ്ട് പഠിക്കുകയൊത്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഷാനി സംസാരിക്കുന്നത് ഏത് വിഷയം ആയാലും പാർട്ടി അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളായാലും ഇപ്പം നമ്മളുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് ആയ ആണെങ്കിലും കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതെല്ലാം കൈകാര്യം ചെയ്തത് നല്ല കണ്ടും കേട്ടും പഠിക്കേണ്ടതായ ഒത്തിരി ഗുണങ്ങള് ഷാനി പ്രഭാകരനുണ്ട്